ആ ആ ഹായ് ആ പറയൂ പറയൂ എത്ര കേക്ക് വേണം രണ്ട് കേക്ക് വേണം ആ പറഞ്ഞോളൂ ആ ഏതൊക്കെ ക്രീം കേക്ക് ഉണ്ടാക്കും അല്ലാതെ മറ്റേ എന്താണ് വേറെ ഒരു കേക്ക് ഉണ്ടല്ലോ ബട്ടർ കേക്ക് ആ

അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ക്രീം കേക്ക് ആണെങ്കിൽ ഞങ്ങൾ ഒരു ഒരു കിലോ കേക്ക് വേണമെങ്കിൽ ഒരു അര കിലോ മൈദ വേണ്ടി വരും മൈദ ഒരു അഞ്ച് മുട്ട വല്ലപ്പോൾ ആ ആ എന്നിട്ട് ഒരു അന് അഞ്ച് ലിറ്റർ പഞ്ചസാര എന്നിട്ട് ആദ്യം ഞങ്ങൾ മൈദ മാവ് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം അതും കഴിഞ്ഞിട്ട് ബേക്കിങ്ങ് പൗഡർ അതുംകൂടെ ഇതിൽ അരിച്ചിട്ടിട്ട് പിന്നെ പഞ്ചസാര പൊടിച്ച് അത് പ്രത്യേകം പൊടിച്ചിട്ടേക്കണം അത് കഴിഞ്ഞിട്ട് മുട്ട ഉടച്ച് ജാറിൽ ഇട്ടതിന് ശേഷം അതിനെ നല്ല ഞങ്ങൾ അടിച്ചെടുത്ത് ഈ പഞ്ചസാരയും മിക്സ് ചെയ്ത് പിന്നെ ഈ മൈദ മാവിനകത്ത് ബേക്കിങ്ങ് പൗഡർ ഇതെല്ലാം ഇട്ട് നല്ല മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഈ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിൽ ഈ മാവ് ഇത്തിരീശെ ഇത്തിരീശെ ഇട്ട് നല്ല അടിച്ച് എന്നാൽ പതച്ച് പതച്ച് അടിച്ചെടുക്കണം വേണമെങ്കിൽ സാറിന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ല എൻറെ നിന്ന് വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം എന്നാൽ ഞാൻ റെസിപ്പി പറഞ്ഞ് തരാം ഓക്കെ ആ കേക്ക് നാളെ വേണമെങ്കിൽ രണ്ട് കേക്ക് ആണെങ്കിൽ നാളെ വേണമെങ്കിൽ ഇന്ന് പറഞ്ഞാൽ മതി അല്ല ആ ഒരുപാട് കേക്ക് ഒക്കെ വേണമെങ്കിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ആയ് വേണ്ടി വരും കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ മിക്സ് ചെയ്ത് നിങ്ങൾ മാത്രം അല്ലല്ലോ ഓർഡർ ചെയ്യുന്നത് പല ഇടത്തുനിന്നും ഞങ്ങൾക്ക് ഓർഡർ വരുന്നുണ്ട് അപ്പം അതനുസരിച്ച് നിങ്ങൾ ഒത്തിരി സമയം തരണം ഓർഡർ ചെയ്യാൻ ആ ഓർഡർ ചെയ് നേരത്തേ ചെയ്ത് ആ നല്ല കറക്റ്റ് നല്ല സാധനമാണ് ആ ക്രീം എല്ലാം കറക്റ്റ് ഡേറ്റ് നോക്കി നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ഡേറ്റ് നോക്കി അതെല്ലാം ക്ലിയർ ആണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി ആ ഓക്കെ ഓക്കെ ആ ശരി ഞങ്ങൾ ആരെയും ഇത് വരെയും പറ്റിച്ചിട്ടില്ല ആണോ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ഒരു പേടിയും വേണ്ട എല്ലാം ധൈര്യമായിട്ട് വാങ്ങിക്കാം ഒന്ന് നോക്കി ക്വാളിറ്റി ഒക്കെ നോക്കി നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ആ ഓക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ചേച്ചിയുടെ ബിസിനസ് ഒരു കിലോയ്ക്ക് ആ ആ ഓക്കെ ആ ആ ആണ് ഒരു കിലോയ്ക്ക് ഞാൻ ഒരു കിലോ കേക്കിന് ആയിരം രൂപയാണ് ഞാൻ ഇപ്പം വാങ്ങുന്നത് ആ അര കിലോ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ കാൽ കിലോ ആണെങ്കിൽ ഇരുനൂറ്റമ്പത് രൂപ അങ്ങനെ അത് അങ്ങനെ നിങ്ങൾ അടുത്തൊക്കെ ആണെങ്കിൽ ഞാൻ ആളെ വെച്ച് കൊടുത്തയയ്ക്കും അല്ല ഇത്തിരി ദൂരെയക്കെ ആണെങ്കിൽ ആരെങ്കിലും വന്ന് എടുക്കുന്നതാണ് എനിക്ക് സുരക്ഷിതം അതാണ് വീട്ടിൽ എപ്പോഴും കുട്ടികൾ കാണത്തില്ല രണ്ട് കുട്ടികൾ ജോലിക്ക് പോവുന്നുണ്ട് ഹസ്ബൻഡ് ജോലിക്ക് പോവുന്നുണ്ട് ഞാൻ മാത്രമാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഒരു സെർവൻറ് വരും അത് വന്നിട്ട് അത് ഡെലിവറി ചെയ്യാനൊന്നും അതിന് പറ്റത്തില്ല സഹായിക്കാനേ വരുള്ളൂ അങ്ങനെ ആ അഡ്വാൻസ് അ മേടിക്കാൻ വരുമ്പോൾ തന്നാൽ മതി എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് നിങ്ങൾ ആ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരുമെന്നുള്ള ആൾക്കാരേ ഞാൻ എടുക്കുന്നുള്ളൂ ഓക്കെ സാർ ഓക്കെ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും എന്നെ തന്നെ വിളിക്കണം ഓർഡർ എൻറെ അടുത്ത് തന്നെ തരണം കേട്ടോ